ഞാൻ ഒരു എൻ്റെ പ്രോഡക്ട് എന്നത് ഒരു ഫോൺ ആണ് ഫോണാണ് പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്നു പറയുമ്പം നല്ല സൗണ്ട് ഉണ്ട് അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി നല്ല നല്ല കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് മെമ്മറി കാർഡിൻ്റെ ഒരു ആവിശ്യം വരുന്നില്ല അതിൽ അതുപോലെ തന്നെ നല്ല സ്പീക്കറിനു നല്ല സൗണ്ട് ഉണ്ട് പിന്ന അതിൻ്റെ ഗുഡ് പാക്കേജിങ്ങ് ആണ് നല്ല അടിപൊളിയാണ്